കൊല്ലത്തിൽ ഓണം വരുമ്പോൾ എൻ്റെ നാട് കുട്ടനാടിൽ എല്ലാവരും ഒരു കാര്യത്തിനായി നോക്കുന്നു നാട്ടിലെ പരമ്പരാഗതമായ വള്ളംകളി വള്ളംകളി വലിയ വലിയ മരം കൊണ്ട് നിർമിച്ച ബോട്ടുകൾ ബോട്ടുകൾ കൊണ്ട് മത്സരിക്കുന്നു ഈ നീളമേറിയ ബോട്ടുകളിൽ കുറേ പേരുനിന്ന് രണ്ടു സൈഡും തുഴയുന്നു കുറേ ടീമുകളായി മത്സരത്തിൽ എല്ലാവരും കാണാൻ വരുന്നു നാടാകെ കേരളമാകെ എല്ലാവരും അറിയപെടുന്നതാണീ വള്ളംകളി ഈ വള്ളംകളി കാണാനായി പുറത്തു നിന്നും രാജ്യത്തിൻറെ പുറത്ത് നിന്നും അങ്ങനെ പല പല വിധ സ്ഥലത്തു നിന്നും ഈ കുട്ടനാട്ടിലേക്ക് ആൾക്കാർ സഞ്ചരിക്കും വള്ളംകളി നടക്കുമ്പോൾ കൊട്ടും പാട്ടും ശബ്ദവും വീര്യവുമെല്ലാം നിറയപെടുന്നു വള്ളംകളിയിൽ ആൾക്കാരുടെ ശക്തിയും ഊർജവും എല്ലാം ഉ ഉയർന്നുനിൽക്കണ നിൽകേണ്ടതാണ് ഉയർന്നു നിന്ന ഈ മത്സരത്തിൽ ആദ്യം എത്തുന്നവർ ജയിക്കുന്നു നീലയുള്ള ഈ നദിയിലൂടെ ഇവർ മത്സരിക്കുന്നു